ഞാൻ ഈ അടുത്ത് പോയ സ്ഥലം എന്നു പറയുമ്പോൾ ആയിരവള്ളി ഹിൽപിക്കാണ് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഇത് സ്ഥിതി ചെയുന്നത് ഇപ്പോൾ അവിടെ എന്നു പറഞ്ഞാൽ ഒരു വലിയ ഹിൽപിക്കാണ് അത് ഭൂമിയിൽ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്ററും ഉയരെ ആണെന്ന് തോന്നന്നു ഉയരെ ആണെന്ന് തോന്നുന്നു അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരനും ആയിട്ടാണ് പോയത് അപ്പോൾ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വൈകിയിട്ട് ഒരു നാലുമണിയൊക്കെ ആയപ്പോഴാണ് പോയത് അപ്പോൾ നാലുമണിയൊക്കെയായി പോയിട്ട് നമ്മൾ സൺസെറ്റ് കണ്ടിട്ട് തിരിച്ചു വരാനാണ് ഇരുന്നത് അങ്ങനെ നമ്മൾ പോയി പോയ സമയം ഉച്ച വെയിലും ഉണ്ടായിരുന്നു നല്ല മഴയും ഉണ്ടായിരുന്നു അപ്പോൾ സൺസെറ്റ് കാണുമോ എന്നൊക്ക നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു എന്നിട്ടും നമ്മൾ ഇവിടെ നിന്ന് ബൈക്കെടുത്ത് പോയി പോയി കുറേ ദൂരം റോഡുവഴി പോണം എന്നിട്ട് കുറച്ച് റബ്ബറും കാടുണ്ട് അതു കഴിഞ്ഞ് ഉൾവനത്തിൽ നിന്ന് നേരെ കയറിപ്പോണം അവിടെ നേരെ കയറിപ്പോകുമ്പോൾ തന്നെ കുറേ അമ്പലവും അമ്പലത്തിൻ്റെ പിരിവ് കമ്മറ്റി ഓഫീസും അതുപോലുള്ള കാര്യങ്ങളെല്ലാം അവിടെ തന്നെയുണ്ട് അപ്പോൾ അതിൽ നിന്നും കുറച്ചുകൂടെ മുകളിലോട്ട് ആണ് പോവാനുള്ളത് പക്ഷെ നമ്മൾ കാടു കയറിയപ്പോൾ ഈ മഴയെല്ലാം നിന്ന് ഈ പാറയിൽ ചൂട് അതുപോലെതന്നെ ഉണ്ടായിരുന്നു മഴ പെയ്തിരുന്നുവെങ്കിലും കാടായതുകൊണ്ട് പാറയിൽ ഡയറക്ട് മഴ അടിച്ചില്ല ഇപ്പോൾ നമ്മൾ കയറി കയറി പാറ ഏകദേശം പകുതി ഹിൽ ടോപ് ആയപ്പോൾ ഏതാണ്ട് തണുപ്പടിച്ച് തുടങ്ങി നാലു ചുറ്റും ഫുളളും മേഘങ്ങളായി അങ്ങനെ ഇവൻ്റെ വീട് തൊട്ടു താഴെയാണ് എൻ്റെ കൂട്ടുകാരൻ്റെ വീട് അപ്പോൾ അവനേയും കൊണ്ടാണ് പോകുന്നത് അപ്പോൾ അവൻ പറഞ്ഞു ഇതുപോലെ മേഘങ്ങൾ മഴയായതുകൊണ്ടാണ് വന്നത് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കയറിയപ്പോൾ ഫുള്ള് മേഘങ്ങൾകൊണ്ട് മൂടിയിരിക്കുകയാണ് നമ്മളെ താഴത്തെ സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല അങ്ങനെ കയറി കയറിയപ്പോൾ ഏകദേശം കേരളത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്തായിട്ടാണ് സൂര്യാസ്തമയം അപ്പോൾ അവിടെ ഒരു ഇതുപോലെ മഴ മല ദൂരെ ഉണ്ട് അപ്പം അതിൻ്റെ ഇടയിൽക്കൂടിയാണ് സൂര്യൻ അസ്തമിക്കുന്നത് ഏകദേശമൊരു ആറ് ആറര ഒക്കേ ആയപ്പോഴാണ് അന്ന് സൂര്യൻ അസ്തമിച്ചത് എനിക്കു തോന്നുന്നു മഴയായതുകൊണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ കയറുന്ന സമയം തന്നെ പാറയിൽ മഴ പെയ്തിട്ട് നല്ല വഴുവഴുപ്പും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സൂക്ഷിച്ചൊക്ക ആണ് കയറുന്നത് പിന്നെ അവിടുത്തെ പ്രത്യേകതയെന്ന് വച്ചാൽ ഇച്ചിരി ഡെയിഞ്ചറാണ് അതുപോലെതന്നെ നാലു ചുറ്റും കമ്പിയൊന്നും കെട്ടിയിട്ടില്ല അപ്പോൾ എപ്പോൾ വേണമെങ്കിലും അവിടെ നിന്ന് കുറേ പേർ സ്ലിപ്പായി വീണ് മരിച്ചിട്ടൊക്കെയുണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം പാറയുടെ നടുക്കായിട്ടാണ് നിന്നത് അതാകുമ്പം ഇതുകൂടി പ്ലെയിനായിട്ടാണ് ഈ നമ്മളൊരു പാറ ഫുള്ള് കയറിയിട്ട് അതിൻ്റെ മണ്ടയിൽ നിന്ന് ഒരു പാറയും കൂടി കയറണം എങ്കിലേ ഫുൾ ഹിൽ ടോപ്പ് എത്തുകയുളളു അവിടെ നിന്നാലേ സൺസെറ്റൊക്കെ കാണുകയുളളു ഏതാണ്ട് ഒരു അമ്പത് കിലോമീറ്റർ അമ്പതല്ല ഒരു മുപ്പത് കിലോമീറ്റർ വിസ്തീർണത്തിൽ ചുറ്റും കാണാൻ പറ്റുന്ന രീതിയിലായിരുന്നു ആ ഹിൽ ടോപ്പ് ഉള്ളുവായിരുന്നു അപ്പോൾ അവിടെ കയറി വളരെ രസകരമായ കാഴ്ചയായിരുന്നു സൂര്യാസ്തമയം കണ്ടു സൂര്യൻ അസ്തമിക്കുന്ന ആ ടൈമായപ്പോൾ സൂര്യൻ്റെ ആ സൂര്യൻ നിൽക്കുന്ന ആ പ്രദേശം ഫുള്ള് ഒരു നല്ല കട്ടി ചുവപ്പ് കളറായി എന്നിട്ടാണ് ഇത് അസ്തമിച്ച് താഴോട്ട് പോയത് അപ്പോൾ ഈ അസ്തമിക്കാൻ നേരം മേഘങ്ങൾ കൊണ്ട് മണ്ടയിൽ മേഘങ്ങൾ കൊണ്ട് മൂടും എന്നിട്ട് പതുക്കെപ്പതുക്കെ ഈ ഏറോപ്ലെയ്ൻ പോകുംപോലെ ഏറോപ്ലെയ്ൻ പോകുമ്പോൾ വെട്ടം അടിക്കില്ലെ അതുപോലെ താഴെ വീടുകൽ ഫുള്ള് ഈ മേഘം പതുക്കെപ്പതുക്കെ പോയപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുള്ള് വെട്ടങ്ങൾ വീണു പിന്നെ അവിടെ ഫുള്ള് ലൈറ്റും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് രാത്രിയും ഒക്കെ സഞ്ചാരം ഓക്കെയാണ് പിന്നെ വന്യമൃഗങ്ങളെ ശല്യം അവിടെ കൂടുതലായിട്ടുണ്ട് പ്രത്യേകിച്ച് പുലിയുടെ ശല്യം അപ്പോൾ നമ്മൾ അധികം താമസിക്കാതെ തന്നെ സൂര്യൻ അസ്തമിച്ചൊരു പത്തു മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ താഴെ ഇറങ്ങി